നമസ്കാരം ഞാന് അശോക് എന്റെ വീട് തൃശ്ശൂരാണ് എന്റെ പ്രദേശത്ത് കണ്ടു വരുന്ന പ്രധാന ജോലി ഐ ടി പ്രൊഫഷനാണ് ഐ ടി പ്രൊഫഷന് ഇത്രയും താല്പര്യം വരാനുള്ള കാരണം അവര്ക്ക് ലഭിക്കുന്ന സാലറി തന്നെയാണ് ബാക്കിയുള്ള ഗവണ്മെന്റ് ജോലിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോള് ഐ ടി പ്രൊഫഷണല്സിന് ലഭിക്കുന്ന സാലറിയുടെ അളവ് വളരെ അധികമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും താല്പര്യം വരാനുള്ള ഒരു കാരണവും എന്നാല് ഈ ഇതൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അവര് പല പല വെല്ലുവിളികള് നേരിടുന്നുണ്ട് ആര്ട്ടിഫിഷ്യല് ഇന്റലിജന്സ് വരുന്നത് അവര്ക്ക് ഒരു വലിയ വെല്ലുവിളിയാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെല്ലാം പുറമേ ഇന്ഫ്ലേഷനും ഇവര്ക്ക് ഒരു വെല്ലുവിളിയാണ്